ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികത്തിന് വേണ്ടി ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് അന്ന് ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ ഭക്ഷണം പാചകത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു അത് ഞാൻ നല്ലവണ്ണം നിർവഹിച്ചു എന്നെ ബാക്കി എല്ലാ എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാ സഹപ്രവർത്തകരും രക്ഷിതാക്കളും എല്ലാവരും എന്നെ സഹായിച്ചു എങ്കിലും അതിൻ്റെ അതിനു വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ട ചുമതല എൻ്റെ തോളിലായിരുന്നു അതുകൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓരോ ഭക്ഷണവും അതിൻ്റേതായ രീതിയിൽ ടേസ്റ്റ് നോക്കി വൃത്തിയായി വെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരാളായതുകൊണ്ടു തന്നെയാണ് എന്നെ എല്ലാവരും കൂടി നേതൃസ്ഥാനത്തിലേക്ക് നയിച്ചതും അത് വളരെ ഭംഗിയായി ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു എല്ലാവരുടേയും നല്ല അഭിപ്രായമാണ് എനിക്ക് ലഭിച്ചത്